ആളുകൾ പൊതുവേ പട്ടണങ്ങളിലാണ് ജീവിക്കാൻ താല്പര്യപ്പെടുന്നത് പൊതുവേ ഗ്രാമങ്ങളിൽ കൃഷിയുമായി ചേർന്നുള്ള ജീവിതം ജനങ്ങൾക്ക് താല്പര്യമില്ല ഈ കാലത്ത് കാരണം പട്ടണങ്ങളിൽ ജീവിക്കുമ്പോൾ വൈറ്റ് കോളർ ജോലി ഉള്ളതായിട്ട് അങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടാൻ കഴിയും ഗ്രാമങ്ങളാവുമ്പോൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ടാകും ഒരു വൈറ്റ് ക്കോളർ ജോലി എന്ന അന്ന ആ താൽപര്യം നടക്കാൻ സാധ്യം സാധിക്കൂല്ല അങ്ങനെ കൃഷി ചെയ്തൊക്കെ ജീവിക്കുമ്പോൾ അദ്ധ്വാനിക്കേണ്ടത് അത്യാവശ്യമാണ് പൊതുവേ ആളുകൾക്ക് ഇതിൽ ഇപ്പോൾ താൽപര്യമില്ലാത്തതായിട്ടാണ് കാണുന്നത് പട്ടണങ്ങളിൽ ജീവിക്കുന്ന മ്പം പൊതുവേ മേലനങ്ങാതെ കഴിയാൻ സാധിക്കും എന്നുള്ളത് ആണ് അതിനുള്ള ഒരു കാരണം പിന്നെ ജീവിക്കും പട്ടണങ്ങൾ ജീവിക്കുന്നത് കൊണ്ട് ജീവിതപങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം ജീവിത പങ്കാളികളിൽ അവരും ഇത്തരം പട്ടണങ്ങളിൽ നിന്നയാണല്ലോ കഴിഞ്ഞുക്കൂടുന്നത് അപ്പോൾ അവർക്ക് പൊതുവെ ഗ്രാമ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഗ്രാമീണ മേഖലയോട് പൊതുവേ എല്ലാവർക്കും താല്പര്യം കുറവാണ് അതുകൊണ്ട് പട്ടണങ്ങൾ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജീവിതപങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാനാകില്ല